കൃഷിക്കായിട്ട് നമുക്ക് പല പല ഉപയോഗം ഉപകരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടില് ഉപയോഗിച്ചു കൊണ്ടിരിക്കണത് നമ്മള് നെൽകൃഷി നോക്കുകയാണ് പറയുകയാണ് പറഞ്ഞാൽ ഇപ്പോൾ നെൽകൃഷിക്ക് വേണ്ടീട്ട് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണത് ഈ നമ്മുടെ അത് തുടക്കം മുതല് ഓരോ സാധനങ്ങളാണ് ഇപ്പോൾ നെല്ലിന് വേണ്ടീട്ട് നടാൻ നടീരെന്ദ്രങ്ങള് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പുല്ല് പറിക്കണ പുല്ല് മെഷീൻ അതായത് പുല്ല് വെട്ടണ മെഷീൻ പിന്നെ കൊയ്യാനുള്ള മെഷീൻ അതുപോലെ ട്രാക്ടർ ട്രാക്ടറ് പിന്നെ പണ്ട് തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അതായത് നമ്മടെ പാടത്ത് വെള്ളവും ചളിയും കാര്യങ്ങളൊക്കെ മിക്സ് ആക്കാൻ അങ്ങനത്തെ അതായത് ആ ഒരു ഒന്ന് ഒന്ന് പാടമൊന്നു മിക്സാക്കി ഇടാനുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ട്രാക്ടർ മെയിനായിട്ട് യൂസ് ചെയ്യണത് പിന്നെ വേറെ നമുക്കിപ്പോൾ തെങ്ങ് കയറാനുള്ള ഒരു ഉപകരണം തെങ്ങ് കയറാൻ വേണ്ടീട്ട് തേങ്ങ പൊളിക്കാൻ വേണ്ടീട്ട് അങ്ങനെയുള്ള അതൊക്കെ പിന്നെ യൂസ് ചെയ്യാം അതൊക്കെ കൃഷിയുടെ ഭാഗമായിട്ടുണ്ട് പിന്നെ നമ്മളീ പാഴ്ചെടികള് വലിച്ചു കളയാനുള്ള അങ്ങനത്തെ മെഷീൻ വന്നിട്ടുണ്ട് പിന്നെ വിത്ത് നമ്മള് പണ്ട് കൈക്കോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് കുഴി ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതില് വിത്തിടണ രീതിയില് നമ്മുടെ ഇപ്പോൾ പുതിയ പുതിയ മെഷീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ കൃഷിക്ക് ആവശ്യമായ കുറേ അധികം എന്താ പറയുക ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഹൈറ്റില് നിൽക്കണ മറ്റേ വേസ്റ്റ് അതായത് വേസ്റ്റ് ചെടികളോ അല്ലെങ്കിൽ കൊമ്പൊക്കെ അറുക്കാനായിട്ട് കട്ടർ പിന്നെ ബ്ലോ മറ്റേ പ്ലൌവിങ് മെഷീൻ അങ്ങനെ കുറെയധികം മെഷീൻ ഇപ്പോൾ നമ്മുടെ നാട്ടില് പ്രചാരത്തിലുണ്ട്